നീ എനിക്ക് നീന്താൻ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഊർജ്ജം നമുക്ക് എന്തു സാധനം നമുക്ക് ഇഷ്ടമുള്ളതാകുമ്പം നമുക്ക് എത്ര ഇല്ലെങ്കിലും നമ്മൾ ഊർജ്ജം കൂട്ടാനും ഇപ്പോൾ കൂട്ടാനൊക്കെ ഇല്ലെങ്കിൽ തന്നെയാണ് നമ്മളതിനോട് നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മളതു ചെയ്തിരിക്കും അതോ ഊർജ്ജം ആണെന്നു പറഞ്ഞാൽ നിലനിർത്താൻ നമുക്കു പറ്റും നമുക്കതിഷ്ടമില്ലെങ്കിൽ നമ്മളോർക്കും ആ വേണ്ട എന്നോർത്ത് നമ്മൾ ചിന്തിക്കും പക്ഷെ എനിക്കു നീന്താൻ കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം കാര്യമാണ് നീന്തുകയെന്നു പറയുന്നത് അപ്പം തനിയെ തന്നെ ഊർജ്ജം വരും നമ്മൾ അതിനുള്ളത് നമ്മൾ കണ്ടെത്തും നമുക്കത് എന്തു വന്നാലും നമ്മൾ സഹിക്കും നേരിടും അങ്ങനെ എന്തൊരിതു വന്നാലും നമുക്കതു ഇഷ്ടമുള്ളൊരു കാര്യമാണ് നീന്തുകയെന്നു പറയുന്നത് പിന്നെ നമ്മൾ മൂ നീന്തുന്ന സമയത്തു തന്നെ മുങ്ങിയാണെങ്കിലും നമ്മളത് ശ്വാസം നമ്മൾ താഴെ ചെന്നാണെങ്കിലും എടുക്കും താഴെ ചെന്നാലും ശ്വാസം വിടും അതു മുകളിൽ വരണമെന്നില്ല എന്നുവെച്ചാൽ നമുക്ക് അതു പരാജയമാണ് നമ്മൾ ഇന്നു നമ്മൾ ആദ്യമായിട്ടല്ല നമ്മൾ സ്ഥിരം നേരത്തേതൊട്ടേ കൊച്ചുനാളു തൊട്ടേ നമ്മൾ മുങ്ങി കുളിച്ചും നീന്തിയും ഒക്കെ വളർന്നതുകൊണ്ട് ഊർജ്ജം എടുക്കാനും അതിനോട് ഇഷ്ടം ഉള്ളതുകൊണ്ടും നമ്മൾ എന്തും ചെയ്യാനും തയ് ഇതാണ് നമുക്കിഷ്ടമാണ്